ഹലോ ആരാ മനസ്സിലായില്ല ആണോ എന്താ കാലിന് പറ്റിയത് ആണോ അത് നമുക്കറിയില്ല നമുക്കത് എന്ന് വച്ച് കഴിഞ്ഞാൽ മേലേന്ന് തരുന്നതുകൊണ്ടെ അവർ കമ്പനിക്കാർ കൊണ്ട് തരുന്നത് നമ്മൾ നല്ല പാലാണ് കൊടുക്കാറ് മിൽമ്മേൻ്റെ പാലല്ലേ അവരാണ് കൊണ്ടുതരുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടറിയില്ല എന്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത് അതിൻ്റകത്ത് ആ അവരെ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുക അല്ലാണ്ട് നമ്മളെ അടുത്ത് പറഞ്ഞിട്ട് കാര്യം ഇല്ല ഞാനെന്താ വെച്ചാൽ ഈ കടയിൽ നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാനീ കടയിൽ നടത്തുന്നതല്ല അവരാണല്ലോ കൊണ്ട് തരുന്നത് മിൽമ്മാക്കാർ അപ്പോൾ നമ്മളെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനൊന്നും അത് പാല് കറക്കാറും എടുക്കാറൊന്നും ഇല്ല അപ്പം അവരീ തരുന്നതാണല്ലോ അപ്പം നമുക്ക് പാക്കറ്റ് പൊട്ടിച്ചുനോക്കൽ അങ്ങനൊന്നും നടക്കില്ലല്ലോ എപ്പോളായിരുന്നു പാൽ വാങ്ങിയത് ഇന്നലെ വാങ്ങിയതാ ആണോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുക എന്നറിയില്ല നിങ്ങൾ അവരെ വിളിച്ച് നോക്കേണ്ടി വരും

ആ ആ

നമ്മളിപ്പോൾ എന്താ ചെയ്യുക അവരോട് ചോദിക്കേണ്ടി വരും നിങ്ങളൊന്നുകൂടെ വിളിച്ച് പറഞ്ഞുനോക്ക് കംപ്ലൈൻ്റ് കൊടുത്ത് നോക്ക് ഓഫീസിലേക്ക് വിളിച്ചാൽ മതി

അതിൻറ്റകത്ത് ഡേറ്റ് നോക്കിനോക്ക് നിങ്ങൾ ആ അപ്പം നമ്മുടെ അടുത്ത് അങ്ങനെ പഴക്കം ഉള്ളത് വരില്ല ഇത് ചില അവർ തരുന്നതാണ് കേട്ടോ അപ്പോൾ അവർ കംപ്ലൈൻറ്റ് ചെയ്താൽ മതി ഇല്ലേ അവിടെ പോയി പറഞ്ഞാലും മതി എന്തായാലും നിങ്ങളവിടെ പോ ഓഫീസി പോവുക നമ്മുടെ ഇവിടെ മാനന്തവാടി തന്നെ ഉണ്ട് ഓഫീസ് മാനന്തവാടി ഈ കാവിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഉണ്ട് മിൽമ്മാൻ്റെ ഇത് അവിടെനിന്നാണ് പാല് വരുന്നത് ഈ പാലും ഇതൊക്കെയായിട്ട് കൊണ്ടുപോയി നോക്കുവാണെങ്കിൽ നമുക്കപ്പം മനസ്സിലാകും പൊട്ടിച്ചാൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ലേ ആ അപ്പം നിങ്ങളങ്ങനെ ചെയ്ത് നോക്ക്

നമുക്കറിയില്ലായിരുന്നു നിങ്ങളന്ന് കാണിച്ച് നോക്കുക അവിടെ പോയിട്ട് എന്നിട്ട് നമ്മുടെ നമ്മൾ ഷോപ്പ് നടത്തുന്നതാണല്ലോ നമുക്കതിനെക്കുറിച്ച് ഉത്തരവാദിത്തം ഉണ്ടാവില്ല എന്താ വെച്ചാൽ അവർ പാക്കറ്റ് ചെയ്ത് വരുന്നതാണല്ലോ അപ്പം അതാണ് പ്രശ്നം നമ്മൾ തരുന്നതാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഒന്നും ഇല്ലെങ്കിൽ പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ച് തരാമായിരുന്നു ഇത് ഒന്നാമത് അവർക്കാണങ്കിൽ ഇന്നലെ ഞാൻ കെട്ടുകയും ചെയ്ത് പൈസ അപ്പം നമ്മളെ അടുത്ത് പറഞ്ഞിട്ട് കാര്യം ഇല്ലല്ലോ നമുക്ക് എന്താ വെച്ചാൽ പാക്കറ്റ് പൊട്ടിച്ച് നോക്കൽ നടക്കില്ലല്ലോ എക്സ്പെരീ ഡേറ്റ് അതിൻറ്റകത്ത് കറക്റ്റാണല്ലോ എന്ന് വെച്ചാൽ ഈ മിനിഞ്ഞാന്നാണ് ഞാൻ പാല് ഇറക്കിയത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എക്സ്പെരീ ഡേറ്റെന്ന് വച്ചാൽ നാല് ദിവസമാണ് വരുന്നത് പിന്നെ ലോങ്ങ് ലൈഫ് എന്ന് പറഞ്ഞ പാൽ ഉണ്ട് ഇപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും അങ്ങനെ കൊടുക്കുന്നത് നല്ലതല്ല അത് കെമിക്കല് ചേർത്തിട്ട് വരുന്ന പാലാ അപ്പം അതുകൊണ്ട് അപ്പം നിങ്ങളവിടെ കംപ്ലൈൻറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്ററ് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യം ഇല്ല പറയാൻ പോവുന്നതിൻ്റെ മുമ്പേ കംപ്ലൈൻറ്റ് ചെയ്യുന്നതായിരിക്കും ബെട്ര് ഓ നാളെ ഞാൻ ഉണ്ടാവും നാളെ ഞാൻ ഉണ്ടാവും ഓഫീസിൽ ഞായറാഴ്ച എല്ലാ ആണല്ലോ അവിടെ ആ ആ മിൽമ്മാ ബൂത്താണല്ലോ അവിടെ ഉണ്ടാവും അവിടെ പോയി കംപ്ലൈൻറ്റ് ചെയ്താൽ മതി

ഏ ആ കടേൻ്റെ ഉടമ ഞങ്ങളാണ് ആ ഉണ്ടെങ്കിൽ ഞാൻ ഡെയിലി കുഴപ്പം ഇല്ല കംപ്ലൈൻ്റ് ഞാൻ അവർ സമ്മതിച്ചില്ലെങ്കിൽ ഞാനുംകൂടെ വരാം നിങ്ങളാദ്യം പോയി നോക്കിക്കോ നാളെ ഓഫീസിൽ പോയാൽ അറിയാമല്ലോ അവിടേക്ക് പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ ആ അപ്പോൾ അങ്ങനെ അത് പാല് കൊടുക്കുന്നതിന് മുമ്പേ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്ത് വച്ചാൽ നല്ലതായിരിക്കും എന്നാൽ ഓക്കെ